കലയുടെ വിഭാഗത്തിലും ഇപ്പോഴും നമ്മടെ നാട് ഇങ്ങനൊരു വേര്തിരിപ്പുള്ളത് വളരേ കഷ്ടകരമായൊരു കാര്യമാണ് ഇപ്പോഴും ഇത് നല്ല രീതിയില് ചില സ്ഥലങ്ങളില് ഇപ്പോഴും തുടരുന്നു എന്നറിയുമ്പോള് വളരെ സങ്കടകരമായൊരു കാര്യം തന്നെയാണ് അത് മാറ്റാനുള്ള ശ്രമങ്ങള് നല്ല രീതിയില് നമ്മുടെ സര്ക്കാര് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലും ഇപ്പോഴും പഴയ ചിന്താഗതിയിലുള്ള ആള്ക്കാര് ഇപ്പോഴും അത് വിട്ടുകൊടുക്കാന് തയ്യാറായിട്ട് നില്ക്കുന്നില്ല ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കില്പ്പോലും ആരും അതിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു സത്യം അങ്ങനെ പറയുമ്പോള് ഇതിന് പ്രത്യേകിച്ച് മാര്ഗങ്ങള് എന്ന് പറഞ്ഞ് പറയാനായിട്ട് ഒന്നുമില്ല എല്ലാവര്ക്കും തുല്യത എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോള് അവര്ക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കൊടുക്കണം എന്നുണ്ടെങ്കില് ഈ കാസ്റ്റെന്ന സിസ്റ്റം മൊത്തത്തിലൊഴിവാക്കിയാല് വളരേ നന്നായിരിക്കും എന്ന് തോന്നുന്നു സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെയൊരു ഭേദഗതി വരുത്താണ്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇപ്പോള് കല ആകട്ടെ വേറെ മറ്റ് എന്ത് വിഭാഗത്തിലായാല്പ്പോലും ഇങ്ങനൊരു ഭേദഗതി വന്നാല് വളരെ നഷ്ടത്തിലേക്കാണ് നമ്മുടെ രാജ്യമായാലും നമ്മുടെ ഇതായാലും പോവുന്നത് അങ്ങനൊരു ഭേദഗതി കാരണം വളരെ മികച്ച കഴിവുള്ള ആള്ക്കാര് പിന്നോട്ട് പോവുകയാണ് അതക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കില് ഇങ്ങനത്തെ സിസ്റ്റംസ് ഒഴിവാക്കണ്ട സമയവും കഴിഞ്ഞു ഇതിന് പ്രത്യേകിച്ച് വഴിയെന്ന് പറയാന് ആയിട്ട് പറയുമ്പോള് നല്ല രീതിയില് എല്ലാരും ഇതിനെതിരെ വര്ക്ക് ചെയ്യണം എന്ന് പറയാം സര്ക്കാരുകള് ഇതിനായിട്ടുള്ള പ്രത്യേകിച്ച് പിന്തുണകള് ഏറ്റെടുത്ത് നടത്തി ആള്ക്കാര്ക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം പങ്കുവയ്ക്കാന് ശ്രമിക്കണം